ഹലോ ആ നിങ്ങൾ ടൂ വീലർ റെന്റിനു കൊടുക്കുന്നുണ്ടെന്നു കേട്ടു ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നു കോഴിക്കോട് വരെ വരുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു വണ്ടി ഞാൻ പറയാം ഇത്തിരി കാര്യങ്ങളറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് ഇതിപ്പം ഞാൻ നമ്മൾ ക്യാഷിൻ്റെ കാര്യവും അതുപോലെത്തന്നെ വണ്ടീൻ്റെ ഇതൊക്കെ വിളിച്ച് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഇത് ഇപ്പം നമ്മൾ വലിയ മറ്റേ ഹിമാലയനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ വണ്ടിക്കെന്തെങ്കിലും കംപ്ലൈന്റുണ്ടെങ്കിൽ അത് ഞങ്ങൾ ശരിയാക്കുമോ അതോ നിങ്ങൾ തന്നെ വന്നു ശരിയാക്കിത്തരുമോ ആയിക്കോട്ടെ ഈ പെട്രോളിൻ്റെ കാര്യമൊക്കെയോ ആ ആ ആയിക്കോട്ടെ രണ്ടു ദിവസം അല്ലേ ഇപ്പോൾ ഒരു ദിവസം നടക്കില്ല ഒരു ദിവസം ഒരു ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞാൽ ശരിയാവത്തില്ലെയെന്നു ചോദിച്ചതാണ് ആയിക്കോട്ടെ ഒന്ന് ഞാനിവിടെ ആലോചിച്ചിട്ട് വിളിക്കാം